പിന്നെ വാക്സിൻ കേന്ദ്രങ്ങളെ പറ്റിയാണ് വാക്സിനേഷനെ പറ്റിയിട്ടെനിക്ക് ആധികാരികമായിട്ട് പറയാനുള്ളത് എന്താണ് ഇപ്പം നമ്മൾ അധികം വാക്സിനേപ്പറ്റി നമ്മൾ കേട്ടത് കൊറോണ എന്ന ഒരസുഖം വന്നതിൻറെ ശേഷമാണ് കാരണം കൊറോണ വന്നപ്പം എല്ലാവരും പറഞ്ഞു വാക്സിൻ ചെയ്യണം പണ്ട് ഇതേപോലെ വാക്സിൻ ഒക്കെ ഉണ്ടായിരുന്നു അതായത് പോളിയോ അങ്ങനെ ഒക്കെ പറഞ്ഞ് വാക്സിൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ആരും കാര്യത്തിൽ എടുത്തിട്ടില്ല പക്ഷേ കൊറോണ എന്നൊരു അസുഖം വന്നതോട് കൂടി വാക്സിനിൻ്റെ ഇമ്പോർട്ടൻസ് വാക്സിൻ കോണ്ട് കൊണ്ട് വാക്സിൻ കൊണ്ട് എന്തിനൊക്കെ ഉപകാരമുണ്ട് വാക്സിൻ ചെയ്തുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ജനങ്ങളിൽ ബെനഫിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം കൊറോണ എന്നൊരു വൈറസോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതോട് കൂടി കൊ വാക്സിനേഷൻ സെൻറേഴ്സ് കൂടി കേന്ദ്രങ്ങൾ കൂടി പണ്ട് നമ്മൾ കേരളത്തിൽ വാക്സിനേഷൻ ഇല്ലായിരുന്നു വാക്സിനെ പ വാക്സിൻ എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം വാക്സിൻ വാക്സിനെ പറ്റിയുള്ളൊരു ബോധവൽക്കരണങ്ങൾ അങ്ങനത്തെ ക്ലാസുകൾ മോട്ടിവേഷൻ ക്ലാസുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കേരളത്തിൽ ഇപ്പം കൊട് വന്ന് വന്നുതുടങ്ങി അതിനൊക്കെ കാരണം കൊ കൊറോണ എന്ന അസുഖം ആണെന്നാണ് എൻറെ ഒരു പേഴ്സണൽ അഭിപ്രായം കാരണം വാക്സിനെ പറ്റിയിട്ട് അറിയാതെ കുറേ ആൾ കുട്ടികൾ മരിച്ചുപോയിട്ടുണ്ട് അപ്പം എന്താണ് പോളിയോ ബാധിച്ച് കുറേ ആൾക്കാർ മരിച്ചുപോയിട്ടുണ്ട് അപ്പം ചെറുപ്പത്തിൽ കൊടുക്കുന്ന പോളിയോ പിന്നെ പത്താം വയസ്സിൽ കൊടുക്കുന്ന ഒരു ടി ടി എന്ന വാക്സിൻ അങ്ങനെയുള്ള വാക്സിൻ ഒക്കെ കൊടുക്കണം എൻ്റെ പേഴ്സണൽ ഉള്ള അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് പിന്നെ അതൊക്കെ ഉള്ളൂ എനിക്ക് വാക്സിനേപ്പറ്റി എനിക്ക് പറയാനും വാക്സിൻ സെൻ്ററിനെ സെൻ്ററിണെ പറ്റിയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്